അങ്ങനെ ആചാരങ്ങളുണ്ടോ നവജാത ശിശുവിനായിട്ട് ഒരു വർഷത്തിൽ ആദ്യ വർഷത്തിൽ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ ചിലർ നോക്കുന്നുണ്ടാകും പിന്നെ ആറാം മാസത്തിൽ ചോറൂണും പിന്നെ നൂല്കെട്ടും ഇരുപത്തെട്ടിന് നൂല്കെട്ടും പിന്നെ ഒന്നാം പിറന്നാളാഘോഷിക്കുക അങ്ങനെയൊക്കെയുണ്ട് അതൊരോർത്തർ ഓരോ ഡിപ്പൻറ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് നമ്മളുടെ നാട്ടിൽ നവജാത ശിശു ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇരുപത്തെട്ടുകെട്ടും പെൺകുട്ടികളാണെങ്കിൽ ഇരുപത്തേഴ് ആൺകുട്ടികളാണെ ഇരുപത്തെട്ട് ചരട് കെട്ടും പിന്നെ പേര് വിളിക്കും അന്നുതന്നെ പിന്നെ നമ്മൾ എല്ലാവരും വന്ന് സ്വർണ്ണമിടും തേനും വയമ്പും കൊടുക്കും അങ്ങനെയൊക്കെ പിന്നെ ഒരു ആറ് മാസമാകുമ്പം അമ്പലത്തിൽ കൊണ്ട് പോയി ചോറ് കിട്ടും പിന്നെ ഹിന്ദുക്കളാണെങ്കിൽ കൃസ്റ്റ്യൻസാണെങ്കിൽ മാമോദിസ മുക്കും ഒരു മൂന്നു മാസം കഴിഞ്ഞ് കഴിയുമ്പം അവരമ്പത്തേഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാമോദിസ മുക്കും മുസ്ലിം കുട്ടികളാണെങ്കിൽ ഒന്നും ചെയ്യില്ല ഇരുപത്തെട്ട് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടേ ഒന്നും ചെയ്യില്ല സുന്നത്ത് കല്യാണമൊക്കെ ആൺകുട്ടികൾക്ക് കുറച്ച് ഒരു രണ്ടു മൂന്ന് വയസ്സൊക്കെ നാല് വയസ്സിനുള്ളിലെ സുന്നത്ത് കല്യാണം നടത്തുകയുളളൂ ചെറിയ കുട്ടിയാകുമ്പോൾ നടത്താറില്ല അങ്ങനെ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടങ്കിൽ ഒരു വയസ്സിൽ ബർത്ത് ഡേ ആഘോഷിക്കും നല്ല ഗ്രാന്റായിട്ട് ബർത്ത് ഡേ ആഘോഷിക്കും അങ്ങനെയാണ് ചെയ്യാറ് അല്ലാതെ അതിൻ്റെ ഇടക്ക് വേറെ വല്ല ആചാരമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു